ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ കൂടുതലും എന്താണ് പറയുക മലയാള ഭാഷ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ നാട്ടിലും മലയാളത്തിന് തന്നെ വേറിട്ട എന്താണ് പറയുക സ്ലാങ്ങുകൾ ഓരോ തരത്തിലാണ് ഇപ്പോൾ മലയാളം പറയുന്നത് ഇപ്പോൾ വയനാട്ടിൽ ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തൃശ്ശൂർ വേറെ രീതിയിലാണ് അതുപോലെ തന്നെ പാലക്കാട് വേറെ കാസർഗോഡ് വേറെ അങ്ങനെ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് മലയാള ഭാഷ ഇതാക്കുന്നത് അപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ജനിച്ച് തുടങ്ങി വളർന്ന് വലുതാവുന്നത് വരെ അവർ മലയാള ഭാഷ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ എന്താണ് പറയുക കേരളത്തിൽ ഉള്ള അവരുടെതായ സ്ലാങ്ങിൽ അവർ മലയാള ഭാഷയിൽ മീനിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് മലയാള ഭാഷേനെ എന്താണ് പറയുക പഠിപ്പിച്ച് നല്ല രീതിക്ക് തന്നെ മുൻപോട്ട് കൊണ്ടുവരാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഈ മലയാള ഭാഷയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതോടുകൂടി ഇവർ ഈ മലയാളത്തിൽ മീനിങ് പഠിച്ച് അത് ഇംഗ്ലീഷ് ആയാലും അത് എന്താണ് പറയുക ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ മനസ്സിലാക്കി വയ്ക്കുകയും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ മീനിങ് മനസ്സിലാക്കി സംസാരിക്കാനൊക്കെ എല്ലാവർക്കും കഴിയുന്നുണ്ട് അതുകൊണ്ട് എന്താണ് പറയുക സാംസ്ക മലയാള ഭാഷ ഇവിടുത്തെ സംസ്കാരം നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സം സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തായാലും ഉയർത്തി കാണിക്കുന്നതിനും മലയാള ഭാഷ നല്ല രീതിക്ക് തന്നെ എല്ലാവരെയും സഹായിക്കുന്നുണ്ടെന്നാണ് എൻ്റെയൊരു അഭിപ്രായം